ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി രണ്ട് പതിനെട്ട് എട്ട് രണ്ടായിരത്തി നാല് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഏഴ്